എനിക്ക് ഇപ്പം ഏറെ താല്പര്യം എന്ന് പറയുമ്പം കുറെ ഫ്രണ്ട്സായിട്ട് ഒറ്റയ്ക്ക് സോളോ സോളോ മീൻസ് ഒരു വണ്ടിയിൽ ഒറ്റയ്ക്ക് ബട്ട് വേറെ വണ്ടിയിൽ വേറെ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോരോ വണ്ടിയിൽ ഒരുമിച്ച് ഇപ്പം എവിടെയാണ് ഒരുന്നിലെ മൂന്നാറ് ഡൽഹി അങ്ങനെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോകണം എന്നാണ് എൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹം അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി സ്വന്തം പൈസക്ക് മേടിച്ച് അതും കൊണ്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു ഫീലായിരിക്കുമല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പക്കെ നമ്മൾ ഇപ്പം ഇതേപോലെ ബൈക്കി പോകുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ട് പോകുമ്പം നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ഒരു ഫീലുണ്ടാവൂലോ അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം കുറെ ഫ്രണ്ട്സക്കെയായി കുറെ വണ്ടി കുറെ ഫ്രണ്ട്സ് കുറെ ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഓരോ സ്ഥലങ്ങൾ ഒക്കെ കണ്ട് കയറി ഇറങ്ങി ഓരോരോ സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്ത് അവിടെ ഉള്ള നാട്ടുകാർ അങ്ങനെ ഉള്ള ഓരോരുത്തർ ഒക്കെ ആയിട്ട് കമ്പനിയായി അങ്ങനെ പോകുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു വൈബാണ് ഇപ്പോൾ എന്താ പറയാ പ്രത്യേകിച്ച് ബൈക്കി പോകുമ്പം ബൈക്കി പോകുമ്പം നമുക്ക് എന്താ എല്ലാ സ്ഥലങ്ങളും ആസ്വദിച്ച് എല്ലായിടത്തും പോയി എല്ലാം കണ്ട് പെറുക്കി പതുക്കെ പോയാൽ മതി കാറിലെന്ന് പറയുമ്പം അതിൻ്റെതായ ഓരോരോ നിയമങ്ങളും കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ബൈക്ക്ന്ന് പറയുമ്പം അങ്ങനെ ഓവർ ഇതില്ല ചെറിയ വണ്ടി ആയത് കൊണ്ട് നമുക്ക് പോകേണ്ട ഇടത്തൊക്കെ അത്യാവശ്യം സൈഡക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയി ഓരോരോ സ്ഥലങ്ങൾ ഒക്കെ കണ്ട് ഫ്രണ്ട്സൊക്കെയായി അവരെ ലക്ഷ്യം റോട്ടിക്കൂടെ നമുക്ക് ഇപ്പം ഇന്ന റോട്ടിക്കൂടെ പോകണം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുല്ലോ ഓരോ വീഡിയോസൊക്കെ കാണുമ്പം ആ റൂട്ടിക്കൂടെ പതുക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലൂടെക്കെ ഇങ്ങനെ പോകുമ്പം നമ്മുടെ മനസ്സിൽ അത്യാവശ്യം നല്ല ഒരു ഇതുണ്ടാവൂല്ലോ പ്രത്യേകിച്ച് ബൈക്ക്ന്ന് പറയുമ്പോൾ ബൈക്ക് കാര്യങ്ങൾ ബൈക്കി പോകുമ്പോൾ വേറൊരു നമ്മൾ വേറൊരു ലോകത്ത് പോകുന്ന ഒരു ഫീലായിരിക്കും അതിപ്പം നമ്മൾ കാറിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല ബൈക്കിങ്ങിനെ കാറ്റൊക്കെ അടിച്ച് അത്യാവശ്യം ഒറ്റയ്ക്ക് ഒരു ഇതിൽ കൂടെയൊക്കെ പോയി ഫ്രണ്ട്സക്കെയായി ഇങ്ങനെ നടക്കുമ്പം എന്തായാലും ഇത് വേറൊരു വൈബായിരിക്കും അങ്ങനെ പോകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം നമ്മൾ എന്തായാലും ഒരു റൂട്ട് ലക്ഷ്യം വച്ചിട്ടുണ്ടാവൂലോ ഇപ്പം നമുക്ക് പോകണം എന്ന് എന്തായാലും അങ്ങനെ ഒരു റൂട്ടൊക്കെ കണ്ടുപിടിച്ച് അതിലൂടെ നമുക്ക് പറ്റിയൊരു വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നതിന് പറയുമ്പം ഒരു മനസ്സിന് തന്നൊരു നല്ല ഹാപ്പിയായിരിക്കും അങ്ങനെ പോകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം